ആദ്യമായിട്ട് വാങ്ങിയത് ഒരു സാംസങ്ങിൻ്റെ മൊബൈൽ ഫോണാണ് സാംസങ് എഫ് തേർട്ടി ഫോർ എന്ന് പറയുന്ന ഒരു മോഡല് ആമ്പത് മെഗാ പിക്സൽ ക്യാമറ വരുന്നതുണ്ട് അതേപോലെ തന്നെ അയ്യായിരം എം എ എച്ച് ബാറ്ററി ഫുൾ എച്ച് ഡി അമോലെഡ് ഡിസ്പ്ലേ കോർണിങ് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ അതല്ലാമാണ് ഈ സാംസങ്ങിൻ്റെ ആദ്യത്തെ ഫോണിൽ ഉണ്ടായത് ഫോണിനെക്കുറിച്ച് പറയാണെങ്കിൽ അടിപൊളി ഫോണാണ് അടിപൊളി എന്ന് വെച്ചാൽ എന്തേ ബിൽഡ് ക്വാളിറ്റി ഒക്കെയുണ്ട് പക്ഷേ ബാക്കിൽ ബാക്ക് ഭാഗം എന്ന് പറയുന്നത് മാത്രം പെട്ടെന്ന് ചെറുങ്ങനെ സ്ക്രാച്ച് ആവുന്നുണ്ട് ബാക്കിയെല്ലാ അതുതന്നെ ബിൽഡ് ക്വാളിറ്റി എല്ലാം അതെ നല്ലതാണ് അതേപോലെ ബാറ്ററി കപ്പാസിറ്റിയും നല്ലതാണ് അത്യാവശ്യം നല്ലൊരു ബാക്കപ്പ് തരുന്ന ഒരു മൊബൈലും കൂടിയാണ് സാംസങ്ങിൻ്റെ എഫ് തേർട്ടി ഫോർ എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായി അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല വൺ ട്വൻറ്റി ഏയിറ്റ് ജി ബി സ്റ്റോറേജും അതേപോലെ തന്നെ ആറ് ജി ബി റാമും അതേപോലെ റാമ് എക്സ്പാൻഡ് ചെയ്തിട്ട് സിക്സ് സിക്സ് ജി ബി അല്ലേ അപ് ടു ഫോർ ജി ബി എക്സ്ട്രാ അതായത് ടെൻ ജി ബി അങ്ങനെ ആ ഒരു സൈസിലേക്ക് നമുക്ക് റാം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം പറ്റുന്ന ഒരു ഫോണാണ് അതിപ്പോൾ ഇപ്പോൾ വരുന്ന എല്ലാ ഫോണിലും അങ്ങനെ റാമ് എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട് അത് ഒരു നല്ല ഒരു ഫീച്ചറാണ് കാരണം മൊബൈല് സ്ലോ ആകുന്നുണ്ടെങ്കിൽ ആ ഒരു റാം എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഫീച്ചറുപയോഗിച്ച് കഴിഞ്ഞാൽ ആ മൊബൈലിനെ സ്മൂത്ത് ആയിട്ട് കുറച്ചും കൂടി സ്മൂത്തായിട്ട് റൺ ആക്കാൻ വേണ്ടി പറ്റും പക്ഷേ ആ ഫീച്ചർ ഉപയോഗിക്കണമെങ്കിൽ എന്തു വേണം സ്റ്റോറേജ് കുറച്ചു വേണം പക്ഷേ നമുക്കിങ്ങനെ കുറച്ചു പോസിറ്റീവിലേക്ക് വരാം ആദ്യം ക്യാമറേനെപ്പറ്റി കുറിച്ച് പറയുകയാണെങ്കിൽ അമ്പത് മെഗാ പിക്ചറിൻ്റെ ഒരു ക്യാമറ അമ്പത് മെഗാ പിക്സൽ ഒ എസ് എന്നു പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ക്യാമറ അതായത് നല്ല നല്ല രീതിയിലുള്ള ഒരു ഇമേജ് സ്റ്റെബിലൈസേഷൻ തരാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഈ മൊബൈലിന് അതേപോലെ അമ്പത് മെഗാ പിക്സലിൻ്റെ ക്ലാരിറ്റി ആ സാംസങ്ങിൻ്റെ തന്നെ സെൻസറാണെന്ന് തോന്നുന്നു നല്ല ഒരു അത്യാവശ്യം ക്ലാരിറ്റി നമുക്ക് ഈ മൊബൈലിൽ എടുത്ത ഫോട്ടോസിന് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഫിഫ്റ്റി മെഗാ പിക്സലിൽ എടുത്തുകഴിഞ്ഞാലും അതേപോലെ രണ്ട് മോഡ് ഓപ്ഷൻസുണ്ട് ഒന്ന് ട്വൽവ് എം എൽ എംബിയിലും എടുക്കാം അതേപോലെ അമ്പത് എംബിയിലും എടുക്കാം അമ്പത് എംബിയിൽ എടുക്കുമ്പോൾ നമുക്ക് സൂമിങ് ഓപ്ഷനില്ല ട്വൽവ് മെഗാ പിക്സിലിൽ എടുക്കുമ്പോൾ സൂമിങ് ഓപ്ഷൻ ഉണ്ട് പക്ഷേ സൂം ആക്കി കഴിഞ്ഞാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് ആ അതേപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ആണ് തരുന്നത് പക്ഷേ സാംസങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേർസ് നമുക്ക് ഇതിൽ എനേബിളാക്കാൻ പറ്റും അതായത് സൈഡ് ബട്ടൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്ലാഷ് കത്തിക്കാൻ വേണ്ടി പറ്റും അതായത് ഫ്ലാഷ് ഓൺ ആക്കാം ഓഫാക്കാം ആ ഒരു ഫീച്ചർ നമുക്ക് ഇതിൽ ആഡ് ആക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഗസ്റ്റേഴ്സ് ഒരുപാട് ഗസ്റ്റേഴ്സ് ഉണ്ട് അതുപോലെന്നെ നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് ആ ഒരുപാട് നോട്ടിഫിക്കേഷൻ ലൈറ്റ്സുകൾ നമുക്ക് ഓണാക്കാൻ വേണ്ടി പറ്റും അതായത് അമോലെഡ് ആയതുകൊണ്ട് ഈ ഫോണിൻ്റെ പ്രത്യേകത എന്നു വെച്ചാൽ ഓൾവെയ്സ് ഓൺ ഡിസ്പ്ലേ പറയുന്ന ഒരു ഫീച്ചറ് അതായത് ഡിസ്പ്ലേനേ നമുക്ക് എത്ര സാ എല്ലാ ടൈമിലും ഓണാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെ ഈ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ മിനിമം പവർ കൺസപ്ഷൻ ആയിരിക്കും ആ മിനിമം പവറിൽ മാക്സിമം ഉപയോഗം അതാണ് നമുക്ക് ഈ അമോലെഡിനെ കൊണ്ട് ഉള്ള ഉപയോഗം അതേപോലെ തന്നെ ഓൾവയ്സ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഫീച്ചർ സപ്പോർട്ട് ആവുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഗസ്റ്റേഴ്സ് സപ്പോർട്ട് ആകുന്നുണ്ട് പിന്നെ സാംസങ്ങിൻ്റെ തന്നെ സാംസങ് ഗുഡ് ലോക്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് എനേബിൾ ആക്കാൻ വേണ്ടി പറ്റും അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്നു പറയുന്നത് എന്താണ് ആ ഈ സാം സാംസങ് ഫോണിൽ എന്ത് അതായത് നമുക്ക് ബാക്കിൽ ഡബിൾ ടാപ്പ് ആക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആപ്പ് ഓപ്പൺ ആക്കുന്ന ഫീച്ചർ എനേബിൾ ചെയ്യാ അല്ലെങ്കിൽ അതേപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് ആക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ആപ്പ് ഓപ്പൺ ആകുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു ഫീച്ചർ നമുക്ക് എനേബിള് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ സാംസങ് ഫോണിലുണ്ട് പക്ഷേ ഇത് ഒരു പതിനാറായിരം ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ആ ഫോണാണ് അതുകൊണ്ടു തന്നെ എന്നാലും എങ്കിൽ എങ്കിൽ കൂടിയും പക്ഷേ ഐഫോണിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് സാംസങ് നൽ നൽകിയിട്ടുണ്ട് പക്ഷേ സാംസങ് അൾട്ര എസ് ട്വന്റി ത്രീ അങ്ങോട്ട് പോകുന്നതിൽ അതായത് ആ ഫോണിലുള്ള ഫീച്ചറുകളും ഇതിൽത്തന്നെ ആ ഫോണിൽ കിട്ടാവുന്ന കുറച്ച് ഫീച്ചറുകളും ഇതിൽ നൽകിയിട്ടുണ്ട് അതേ കോമണായിട്ടുള്ള ഫീച്ചേഴ്സ് പക്ഷേ ഇതിലെ വേറൊരു മറ്റെല്ലാ ഫോണിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായിട്ട് കണ്ട ഒരു കാര്യമാണ് അതായത് ഫ്ലാഷ് ലൈറ്റിൻ്റെ ഇൻ്റൻസിറ്റി നമുക്ക് കൂട്ടാനും കുറക്കാനും പറ്റും അത് ഏറ്റവും നല്ല ഒരു ഫീച്ചറാണ് കാരണം നമുക്ക് ലൈറ്റ് കുറക്കാം ലൈറ്റ് കൂട്ടാം ആ ലൈറ്റിൻ്റെ പ്രകാശ തീവ്രത നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി പറ്റുന്ന ഒരു ഫീച്ചറ് ഇതിലെ സാംസങ് നൽകിയിട്ടുണ്ട് അത് ഏറ്റവും നല്ല എന്തേ നമ്മൾ യൂസേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഒരു കാര്യം തന്നെയാണത് പിന്നീട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ത് ഫസ്റ്റ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു എക്സൈറ്റ്മെന്റും അതേപോലെ തന്നെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഫോണിന് അതേപോലെ ഇതിൻ്റെ ആ ഒരു നിർമ്മാണരീതി അതേപോലെ നിർമ്മാണരീതി എന്ന് പറഞ്ഞാൽ ആ സ്റ്റൈലാണ് നിർമ്മാണ രീതിയല്ല ഇതിൻ്റെ ഒരു സ്റ്റൈല് നല്ല ഒരു ലുക്ക് ഈ ഫോണിലുണ്ട് ആ നല്ല ലുക്ക് എന്നു പറഞ്ഞാൽ കാണാൻ ഭംഗിയുള്ള ഒരു സ്ട്രക്ച്ചറാണ് ഈ സാംസങ് ഫോണിലുള്ളത് അതേപോലെ തന്നെ വെയ്റ്റിന് അതായത് ഇതിൻ്റെ ഭാരമെന്ന് പറയുന്നത് കുറവാണ് ലൈറ്റ് വെയിറ്റ് ഭാരം കുറവായതു കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ ഈസിയാണ് പിന്നെ അതേപോലെ തന്നെ മറ്റൊരു ഫീച്ചറാണ് ഗ്യാലറി ആപ്പിലുള്ള ഒരു ഫീച്ചർ അതായത് നമുക്ക് ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയിൽ നിന്ന് ഒബ്ജക്റ്റിനെ മാത്രം കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ഒരു രണ്ടു മൂന്നു ആൾക്കാരുടെ ഫോട്ടോ ഒരു രണ്ടു മൂന്ന് ഒബ്ജക്റ്റ് രണ്ടു മൂന്ന് ആൾക്കാർ ഒരു ഫോട്ടത്തിൽ ഉണ്ടെങ്കിൽ ആ മൂന്നാൾക്കാരെയും മാത്രം അതായത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ആ മൂന്ന് ആൾക്കാരെ മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് വേറൊരിടത്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് സാംസങ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ എല്ലാ അതായത് സെറ്റിംഗ്സിൻ്റെ ഉള്ള ആ ഒരു അലൈൻമെന്റ് നമുക്കു മാറ്റാൻ വേണ്ടിയിട്ടും സെറ്റിംഗ്സിൽ ഉള്ള എല്ലാ എല്ലാ എഡിറ്റിംഗും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോണിൽ പറ്റുന്നുണ്ട് ഫ്രണ്ട് ക്യാമറേനെ കുറിച്ച് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫ്രണ്ട് ക്യാമറ തന്നെയാണ് ലൈ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രം അതായത് ലോ ലൈറ്റിൽ അത്രയില്ലെങ്കിലും പക്ഷേ നല്ലൊരു പ്രകാശത്തിന് നല്ല അത്യാവശ്യം നല്ലൊരു പെർഫോമൻസാണ് നമുക്ക് ഈ ഫോണിൽ നിന്നും ലഭിക്കുന്നത് അതേപോലെ തന്നെ ഉപയോഗ ഉപയോഗിക്കുന്ന അതായത് ബാറ്ററി ബാക്കപ്പ് നല്ല ഒരു ബാറ്ററി ബാക്കപ്പ് ആണ് ഇതിൽ ഉള്ളത് ഒരുപാട് ബാറ്ററി ബാക്കപ്പ് ഇത് നൽകുന്നുണ്ട് ഒരുപാട് ഉപയോഗി അത് ഇരുപത്തി നാല് മണിക്കൂർ ഒരു ചാർജിൽ നമുക്ക് ഇരുപത്തി നാല് മണിക്കൂർ എന്തായാലും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കണ്ടിന്യൂസ് ഉപയോഗം അല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇടയ്ക്കിടെ ചാർജ് ആക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നും വരുന്നില്ല പിന്നെ സാംസങ്ങിൻ്റെ തന്നെ അപ്ഡേറ്റുകൾ അതായത് മാസാ മാസം മാസന്തോറും മാസം തോറും അല്ല ഓരോ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളും സാംസങ് കൊടുക്കുന്നത് നാലുവർഷത്തെ അപ്ഡേറ്റ് സാംസങ് നൽകുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ വാങ്ങിച്ച ആദ്യത്തെ പ്രോഡക്റ്റ് ആയ സാംസങ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് സാംസങ് എഫ് തേർട്ടി ഫോർ എന്നു പറയുന്ന പ്രോഡക്റ്റ് വിലയായാലും ഗുണമായാലും അതിൻ്റെ പെർഫോമൻസ് ആയാലും നല്ല രീതിയിലുള്ള ഒരു അനുഭവം തന്നെയാണ് എനിക്ക് ഇതിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് നല്ല ഒരു ഫോൺ തന്നെയാണ് ആദ്യം പർച്ചേസ് ചെയ്ത എൻ്റെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്നു പറയുന്നത് പ്രൊട്ടക്ഷൻ്റെ കാര്യം നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് അതായത് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം താഴെ വീണാൽ ഒന്നും പൊട്ടാത്ത രീതിയിൽ അതേപോലെ തന്നെ കുറച്ച് കാഠിന്യം ഉള്ളതും ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടു തന്നെ ആ അങ്ങനെ അത്ര ഒരു പേടിക്കേണ്ട കാര്യം ഇല്ല അത്രയും ശക്തമായിട്ട് വീണെങ്കിൽ മാത്രമേ ഇത് പൊട്ടുന്നുള്ളൂ അല്ലാതെ പൊട്ടിയിട്ടില്ല ഇതുവരെ പക്ഷേ അങ്ങനെയെങ്കിൽ മാത്രമേ ഇത് പൊട്ടുകയുള്ളൂ എന്നാണ് സാംസങ് പറയുന്നത് പക്ഷേ ഒരു പ്രാവശ്യം വീണിട്ടുണ്ട് എന്നിട്ടും ഒന്നും ആയിട്ടൊന്നുമില്ല കാരണം കുറച്ചു ഉയരത്തു നിന്ന് വീണിട്ടും ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഈ മൊബൈലിൽ ഉണ്ട് പിന്നെന്താണ് ഡിസ്പ്ലേ ആയാലും നല്ല രീതിയിലുള്ള ഒരു കാഴ്ച സമ്മാനിക്കുന്ന ഒരു മൊബൈൽ ഫോൺ തന്നെയാണിത് നല്ലൊരു ഉപയോ ഉപയോഗിച്ചതിൽ നല്ല ഒരു അഭിപ്രായം എനിക്ക് ഈ ഫോണിനോട് ഉണ്ട്